തീർച്ചയായും എൻ്റെ ലൈഫ് പാർട്ണറുടെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതല് ബൈക്ക് യാത്രകള് നടത്തിയിട്ടുള്ളത് അതും ഇത്തരത്തിലുള്ള യാത്രകൾക്ക് ഒരുപാട് പ്ലാനിങ്ങുകളുണ്ടായിരിക്കും പോകേണ്ട സ്ഥലത്തെക്കുറിച്ചും അവിടേക്കുള്ള വഴിയെക്കുറിച്ചും നമുക്ക് പെട്രോൾ അടിക്കാവുന്നതും അതുപോലെ ഭക്ഷണം കഴിക്കാവുന്നതുമായിട്ടുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ആദ്യം തന്നെ ഒരു ഐഡിയ ഉണ്ടാക്കും എന്നിട്ട് ക്ലൈമറ്റ് ആ യാത്രയ്ക്ക് നമ്മള് നോക്കുന്നൊരു ഘടകമാണ് കൂടുതല് ചൂടുള്ളതോ അല്ലെങ്കില് മഴക്കാലത്തോ അത്തരത്തിലുള്ള യാത്രകള് ഒഴിവാക്കാറാണ് പതിവ് അതുപോലെ രണ്ട് പേരുടെയും സമയം കൂടി നമ്മള് അതില് പരിഗണിക്കാറുണ്ട് ജോലിയില്ലാത്ത അതുപോലെ കൂടുതൽ വിനോദസഞ്ചാരികളില്ലാത്ത ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള യാത്രകൾക്കായിട്ട് തെരഞ്ഞെടുക്കാറ് കാരണം ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ കുറച്ചുംകൂടി കാം ആന്ഡ് ക്വയറ്റ് ആയിട്ടുള്ള ടൈമായിരിക്കും നല്ലത് കൂടുതലും മൗണ്ടൻ ഏരിയാസാണ് നമ്മള് യാത്രയ്ക്ക് വേണ്ടി തെരഞ്ഞെടുക്കാറ് ബൈക്ക് യാത്രയാകുമ്പോള് ആ സ്ഥലങ്ങളില് നമുക്ക് അവിടുത്തെ പ്രകൃതിഭംഗി ആസ്വദിക്കാനും വന്യജീവികളെ കാണാനുമൊക്കെ മറ്റ് യാത്രകളേക്കാളും ബൈക്ക് യാത്രകള് ഒരുപാട് ഉപകാരപ്രദമാകാറുണ്ട് വേറെയേത് യാത്രയെക്കാളും നമുക്ക് ആ യാത്രകൾ എൻജോയ് ചെയ്യാൻ പറ്റുന്നതും ബൈക്കിലായിരിക്കും അതുപോലെ നമ്മള് യാത്രയില് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് കൂടെ കൂടുതൽ സാധനങ്ങള് കൊണ്ടുപോകാറില്ല നമുക്ക് യാത്രയില് ഭാരം തോന്നാത്ത രീതിയില് കൺവീനിയൻറ്റ് ആയിട്ടുള്ള രീതിയില് ഡ്രസ്സും അത്യാവശ്യത്തിന് വെള്ളം ചെറിയ സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടെ കൊണ്ടുപോകാറുള്ളത് ബൈക്കാണെങ്കിലും നമ്മളതിലും കുറച്ചുംകൂടിയും ശ്രദ്ധിക്കാറുണ്ട് കാരണം നമുക്ക് ലോങ്ങ് ജേണി ആകുമ്പോള് അതിന് നമുക്ക് കംഫർട്ടബിളാകുന്ന വണ്ടിയിലാണ് കൂടുതലും റോയൽ എൻഫീൽഡ് പോലെയുള്ള വണ്ടികളാണ് നമ്മള് യാത്രയ്ക്കായിട്ട് തെരഞ്ഞെടുക്കാറ് അത്തരം കാര്യങ്ങളൊക്കെ യാത്രയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് അതുപോലെ തന്നെ ആ യാത്ര പൂർണ്ണമാകണമെങ്കില് നമ്മളീ പറഞ്ഞതുപോലെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞ് പ്ലാൻ ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു യാത്ര നമുക്ക് ലഭിക്കുകയുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കൂടുതലും ബൈക്ക് യാത്രകളില് ശ്രദ്ധിക്കാറ് അതുപോലെ തന്നെ വണ്ടിയുടെ സർവീസ് നമ്മളതിന് മുന്നേ പൂർത്തിയാക്കിയതിന് ശേഷമാണ് കൂടുതലും യാത്രകള് കണ്ടക്ട് ചെയ്യാറ് വണ്ടിയുടെ കണ്ടീഷനും നമ്മള് ശ്രദ്ധിക്കാറുണ്ട് ഇല്ലെങ്കില് നമുക്ക് യാത്രകളില് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് നേരിടും അപ്പോള് അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളും യാത്രകൾക്ക് മുമ്പ് ശ്രദ്ധിക്കാറുണ്ട്